ആ ഹലോ ആ അതേലോ ആണോ ആ എന്നാ ഉണ്ട് എന്നാ വിളിച്ചേ ആ അവന് പിന്നെ പഠിത്തത്തിൽ ഈ ഇടയൊക്കായിട്ട് ഇച്ചിരെ ഉഴപ്പൊക്കെ ഉണ്ട് അ ആ എന്നാ ക്ലാസ് അയ്യോ അതെന്നാത്തിനാ ഇപ്പോൾ ലീവെടുക്കുന്നത് അയ്യോ നിങ്ങൾ ഈ എന്നാ ക്ലാസ്സുള്ള ദിവസം ഫാമിലി നിങ്ങൾ അവധിക്കാലത്ത് വല്ലോം ടൂറ് ഫിക്സ് ചെയ്യാം മേലായിരുന്നോ പിള്ളേർക്ക് പിള്ളേരുടെ ക്ലാസ്സ് പോകത്തില്ലെ ആ അത് ഞാൻ ആ ടീച്ചറ് പറഞ്ഞു അവന് വല്ല മാക്സൊക്കെ അവന് ഭയങ്കര പാടാന്നാ പറഞ്ഞത് അപ്പോൾ ആ ക്ലാസ് എല്ലാം നഷ്ടപ്പെട്ട് പോകുവല്ലേ അപ്പം ആ ദിവസങ്ങളിലെ ക്ലാസുകളെല്ലാം

ആ അപ്പം എനിക്ക് ഒരു ഉറപ്പ് തരുവാണെങ്കിൽ എന്നാൽ അവൻ ഈ വിഷയത്തിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളാം അല്ല ഈ വിഷയത്തിലല്ല ഈ ടേമിൽ എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങിച്ചോളാം എന്ന ഉറപ്പ് നിങ്ങൾ തരുവാണെങ്കിൽ ഈ ദിവസം കൊണ്ട് ഈ ദിവസം ഈ ദിവസം കൊണ്ട് പഠിക്കുന്നതല്ല ഈ ദിവസം പോകുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ക്ഷീണം പിന്നെ ക്ലാസിൽ വന്നിരുന്നു കഴിയുമ്പോഴത്തേന് പിന്നെ ആ ദിവസം ആ ഒരാഴ്ച മുഴുവനും പോക്കാണ് അതുകൊണ്ട് അവൻ ഈ ടേമിൽ ആ ആ അപ്പോൾ അ ഈ ടേമിൽ അവൻ എല്ലാത്തിനും ന്ന നല്ല എ ഗ്രേഡ് കിട്ടത്തക്ക വിധത്തിലുള്ള മാർക്കവന് വാങ്ങിക്കാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടു പോകാവുള്ളൂ ആ അ അപ്പത് ക്ലാസ് ടീച്ചറിനോടും കൂടെ ക്ലാസ് ടീച്ചറിനോടും കൂടെ ഒന്ന് പറഞ്ഞേച്ചു പറഞ്ഞേച്ച് വേണം പോകാനായിട്ട് ആ അ അ പിന്നെ അതൊരു ലീവ് ഫോം ഒക്കെയുണ്ട് അത് ക്ലാസ് ടീച്ചറിനോട് ചോദിച്ചിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഒക്കെ ചോദിച്ച് അത് എഴുതി ഒക്കെ കൊടുത്തേച്ചെ പോകാവുള്ളൂ ഇനി ഇത് ഇത് ഇത് ആ സ്കൂളിൽ വരണം സ്കൂളിൽ വന്നു വേണം അതൊക്കെ എഴുതി കൊടുക്കാനായിട്ട് അ ഒരാ ഒരാൾക്ക് ഇത് ഇങ്ങനൊക്കെ വരുമ്പോഴത്തേന് ഒരാൾക്ക് ഒരു ലീവ് കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് അവർ എവിടെ പൊക്കോട്ടെ ഇവിടെ പൊക്കോട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതുകൊണ്ട് ആ ഇനിയും ഇനിമേലിൽ ഇത് ഇങ്ങനെ ഒരു സ്കൂൾ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഇനി ഇത് അനുവദിക്കേല കേട്ടോ ഇനി ഒരു ലീവും ഇനി എന്തെങ്കിലും അസുഖം വരുമ്പോൾ അ അന്നല്ലാതെ അല്ലാതെ ഇനി ഒരു ലീവും ഇനി അനുവദിക്കേല അത് അവനോ അവനോടും പറഞ്ഞേക്ക് അത് അവനോടും പറഞ്ഞേക്കണം ആ ആ ശരി ശരി ഓക്കെ